ഇന്ത്യയിലെ കാലാവസ്ഥ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് ഒത്തിരി വ്യത്യസ്തമായ കാലാവസ്ഥകളാണ് പല സംസ്ഥാനത്തും അനുഭവപ്പെടുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്തൊക്കെ ചൂട് നല്ല ചൂട് കൂടുതലുള്ള കാലാവസ്ഥയാണ് പിന്നെ മുകളിലോട്ട് പോകുംതോറും കശ്മീർ അങ്ങനെ പോകുന്തോറും തണുപ്പ് വളരെ കൂടുതലുള്ള കാലാവസ്ഥയുണ്ട് ഞാനിപ്പോള് താമസിക്കുന്നത് കേരളത്തിലായതു കൊണ്ട് കേരളത്തിലെ കാലാവസ്ഥയാണ് കൂടുതലും നമുക്ക് അനുഭവമായിട്ടുള്ളത് കേരളത്തിൽ മൂന്ന് രീതിയിലാണ് ജാനുവരി വി വിൻറ്റർ സീസണുണ്ട് നവംബർ ഡിസംബർ ജാനുവരിയൊക്കെ മാസത്തില് കുറച്ച് തണുപ്പ് കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയാണ് പിന്നെ അത് കഴിഞ്ഞാല് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എല്ലാം വളരെ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയാണ് അത് ഇപ്പോള് ആയിട്ട് കൊ കുറേ വർഷങ്ങളായിട്ട് ചൂട് ഒന്നിനൊന്നിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് നാല്പത് നാല്പത്തിരണ്ട് ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്

അങ്ങനെ മഴയും മഴ കൂടുതലും ചൂട് കൂടുതലും ഈ രണ്ട് കാലാവസ്ഥകളാണ് കൂടുതല് പിന്നെ തണുപ്പങ്ങനെ വളരെ കൂടുതലായിട്ടില്ല ഒന്ന് രണ്ട് മാസമൊക്കെ ചെറിയ തണുപ്പുള്ളു പിന്നെ അങ്ങനെയൊരു കാലാവസ്ഥയാണ് കേരളത്തില്